അതെ അതെ താങ്കൾ എന്താണ് ജോലി ചെയ്യുന്നതാണോ വർക്ക് ചെയ്യുന്ന പഠിക്കുന്നതാണോ അതെ അതെ കോളേജിലോ സ്കൂൾ ടൈം

അതെ പ്ലസ് വണ്ണിലേക്ക് ഇനി ജോയിൻ ചെയ്യേണ്ടത് ആ ഓക്കെ ഓക്കെ ആ ആ നമ്മള ഇൻസ്റ്റിറ്റ്യൂഷനിൽ മോർണിംഗും ഉണ്ട് ഈവനിംഗ് ബാച്ചും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈം ആണോ താൽപ്പര്യം മോർണിംഗ് ബാച്ച് പറഞ്ഞാൽ മോർണിംഗ് സിക്സ് ആറ് മണി മുതൽ എട്ട് മണി വരെ ആണ് വൈകുന്നേരം അല്ല വൈകുന്നേരം അഞ്ച് മണി മുതൽ ഏഴ് മണി വരെ അങ്ങനെയാണ് നമ്മള ടൈമിംഗ് വരുന്നത് അത് ആ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഉണ്ടാവുക അത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചേരുമ്പം തന്നെ ഒരു ചെറിയ ഒരു ഡോണേഷൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു ഫോർ തൗസൻഡ് നാലായിരം രൂപ കൊടുക്കണം പിന്നെ അതിന് ശേഷം പിന്നെ ഓരോ മാസം മാസം ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് അടയ്ക്കുവാണ് വേണ്ടത് അത് ആ ഈ ആ വേണ്ട അത് ആദ്യം നമ്മൾ ചെയ്യുന്ന ഡോണേഷനിൽ തന്നെ ആണ് നിങ്ങൾക്ക് ഉള്ള യൂണിഫോം ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ തന്നെ തരും ആ അതിൻ്റെ ആ ഫുട്ബോൾ കോച്ചിംഗിന് വേണ്ട എല്ലാ ആക്സസറീസും നമ്മൾ തന്നെ തരും വേറെ ഒന്നും നിങ്ങൾ പുറമേ നിന്ന് വാങ്ങേണ്ടി വരില്ല

ആ രാവിലത്തെ ബാച്ച്

ആ ഇല്ല ഇവിടെ ആ ആ ഓ ഇവിടെ വന്നിട്ട് കൂടെ പാരൻറ് ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ പേ ആ പേ ആ ഒരു ഒരു ഫോട്ടോ ഒരു ആധാറിൻ്റെ ഒരു കോപ്പിയും വേണം നമുക്ക് അവിടെ അവർ ഫോമിൽ ഫിൽ ചെയ്യുമ്പോൾ അത് വേണ്ടതാണ്

ആ അപ്പോൾ ഇനി അഥവാ ചില സമയം നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ വരാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം വന്നാലും മതി ആ അപ്പോൾ നിങ്ങൾ അതിപ്പോൾ ഇപ്പോൾ കുറേ ബാച്ചുകൾ ഉണ്ട് അപ്പോൾ ഓരോരോ ആൾക്ക് ചില സമയത്ത് രാവിലെ പറ്റില്ലെങ്കിൽ നമ്മൾ ആദ്യമേ നിങ്ങളെ ഇൻഫോം ചെയ്യും അതിന് ശേഷം നിങ്ങൾ വന്നാൽ മതി ആ അപ്പോൾ ഞാൻ ആ ആ ഓ ആ ശരി ശരി ആ